മൊബൈല് ഫോണ് നെഗറ്റീവ് എന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫർമേഷൻ സെക്യൂറല്ല നമ്മള് അറിയാത്ത ഒരു പെര്സണ് ഒരു തേർഡ് പേർസൺ ഇതെല്ലാം കാണുന്നുണ്ട് നമ്മുടെ ഇന്ഫര്മേഷന്സ് അവർ അവർ അവരുടെ പര്പ്പസിനുവേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ ഹാകിംഗ് പോലുള്ളതുണ്ട് നമ്മുടെ എന്താ പറയുക പേര്സണല് കാര്യങ്ങള് പോലും മറ്റൊരാൾ ചൂഷണം ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ നമ്മുടെ എന്താ ബാങ്കിലുള്ള പൈസയെല്ലാം ഒരു ഒ ടി പി മുഖേന മറ്റോരാൾക്ക് എടുക്കാന് കഴിയും അതുപോലെത്തന്നെ പിന്നെ നമ്മുടെ ഒരുപാട് മെന്റലി ഐ ക്യൂവിന് ഒക്കെ പ്രശ്നമുണ്ട് കാരണം ഇപ്പോള് ചെറിയ മക്കൾ പോലും ഫോണിലാണ് ട്വെന്റി ഫോര് ഹവേഴ്സും അപ്പോൾ അവർക്ക് കണ്ണിനു ആയിക്കോട്ടെ അവരുടെ ഐ ക്യുവിന് ആയിക്കോട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെത്തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒരു കാര്യം ചെയ്തുതീര്ക്കാനുള്ള ടൈമും ഒരുപാട് ആവുകയാണ് ഇപ്പോൾ ഫോണിൽ നോക്കി ഇരിക്കുകയാണ് നമുക്ക് വേറൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ഒന്നിനും ഒരു ഇന്ട്രെസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ ഫോണിൽ ടൈം പാസാണ് ഒരുപാട് ടൈമാണ് ഇതിനു വേസ്റ്റ് ആവുന്നത് നമ്മൾ നമ്മുടെ കാര്യം ചെയ്യാന് വേണ്ടി മറന്നു പോവുന്നുണ്ട് അതുപോലെത്തന്നെ എന്താ പറയുക ഒരുപാട് ഹാക്കിംഗ് അതുപോലെത്തന്നെ നമ്മുടെ ഡാറ്റയൊന്നും സെക്യൂറല്ല നമ്മുടെ മണിയെല്ലാം നഷ്ടപ്പെടുന്നുണ്ട് ഫോണു വഴി